ഇപ്പം ഞാനിവിടെ അടുത്തു പോയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊൻപാറകുന്ന് പിന്നെ എന്താ വെള്ളരിമല അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഞാൻ കൂടുതലും പോയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എന്താ പറയുക റിയലി എന്താ പറയുക അഡ്വഞ്ചർ ആയിട്ടുള്ള സ്പോട്ടുകൾ തന്നെ ആയിരുന്നു അപ്പോൾ ഞാൻ രാവിലെ എണീറ്റാണ് പോയത് ചെന്ന് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ അടിപൊളി സ്ഥലമായിരുന്നു വ്യൂവും കാര്യങ്ങളും ഒക്കെ കൊള്ളാം അടിപൊളിയായിരുന്നു അപ്പോൾ യാത്ര ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടപ്പെട്ട സ്പോട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതു തന്നെയാണ് രാവിലെ എണീറ്റ് പോകുകയും വീട്ടിൽ നിന്ന് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ കൂട്ടിയിട്ട് രാവിലെ ഒരു ജസ്റ്റ് ട്രിപ്പ് പോലെയാണ് ഞാൻ പോയത് ചെല്ലു പോകുമ്പോൾ ഒന്നും എനിക്ക് ഇത്രയൊന്നും പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം അവിടെ വലിയ കാര്യമായിട്ടൊന്നും അവിടെ ഒന്നും കാണാനില്ല എന്ന രീതിയിലാണ് ഞാൻ പോയിരുന്നത് പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നടന്ന് ഒരു അവശത അവശത ഒക്കെയായിരുന്നു എന്നാലും മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കാണുന്ന വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ പറയുക ആ മൂഡ് ഓഫ് ഒക്കെ അങ്ങ് മാറി കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ആ സ്ഥലം അപ്പോൾ കണ്ടപ്പോൾ നമുക്ക് എന്തുകൊണ്ടും നല്ലൊരു സ്ഥലമായിട്ട് തന്നെയാണ് തോന്നിയത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അത് ഒരു എന്താ പറയുക ഇഷ്ടപ്പെട്ട ഒരു വ്യൂ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവരും പോകുക അത് നല്ലവണ്ണം ആസ്വദിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്